ഇപ്പോൾ മലയാള ഭാഷയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം എന്താന്ന് വച്ചാല് മലയാള ഭാഷ അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപം പോലെ ആയിട്ട് മാറിയിട്ടുണ്ട് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമുക്ക് മലയാളഭാഷാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആരും അങ്ങനെ സംസാരിക്കുന്നു ഒന്നുമില്ല ക ഇപ്പോൾ എല്ലാരും ഇംഗ്ലീഷ് മാത്രാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു ജോലി കിട്ടണമെങ്കിൽ തന്നെ നമ്മള് മലയാളത്തിൽ പോയി പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ജോലിയും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പം അത് വളരെയധികം പ്രശ്നമുള്ളൊരു കാര്യമാണ് മലയാളഭാഷയെ നമ്മള് നല്ല രീതിയില് മുന്നോട്ട് കൊണ്ട് വരണ്ട ഒരു കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മള് നല്ല രീതില് ചെയ്തിട്ടില്ലങ്കിൽ നമ്മള് ഇപ്പം നമ്മള് വളർന്ന് വരുന്ന തലമുറക്ക് പോലും മലയാളം അറിയാൻ പറ്റാത്ത ഒരു ക സ്ഥിതി ആയിട്ട് മാറും അപ്പോ അതുകൊണ്ട് നമ്മള് മലയാളഭാഷയെ നല്ല രീതില് പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ആളുകളില് നമ്മള് മലയാളഭാഷ നല്ല രീതില് എത്തിക്കാൻ വേണ്ടീട്ടിട്ട് എന്തെങ്കിലും ഒരു കല പരിപാടികളോ കാര്യങ്ങളോ ഒക്കെ റെഡി ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റാറായിരിക്കും കാരണം നമുക്ക് ആളുകളിലേക്ക് മലയാളഭാഷ നല്ല രീതില്ത്തിക്കാൻ വേണ്ടീട്ടിട്ട് പരമാവധി ശ്രമിക്കണം